ഹലോ ഹലോ ഇത് ലൗലി റസ്റ്റൊറൻറ് അല്ലേ ഓക്കെ ഞങ്ങൾ ഇവിടെ ഗുരുവായൂർ വന്നതായിരുന്നേ തൊഴാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പം ഞങ്ങളൊരു പത്ത് പേർ അടങ്ങുന്ന ഒരു ചെറിയൊരു വാനിലാണ് വാനിലാണേ വന്നത് അപ്പം നമുക്ക് വെജിറ്റേറിയൻ ഫുഡ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അപ്പം നെറ്റിൽ നോക്കിയപ്പോഴത്തേക്കും നിങ്ങളുടെ കടയാണ് ഫസ്റ്റ് കണ്ടത് നല്ല റേറ്റിങ്ങും ഒക്കെ കണ്ടു അപ്പോഴത്തേക്ക് അത് കണ്ടുകൊണ്ട് വിളിച്ചതാണ് ഇത് ഗുരുവായൂർ അടുത്ത് തന്നെയാണല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അഞ്ച് മിനിറ്റേ ഉള്ളൂ ഓക്കെ ഓക്കെ അവിടെ എന്തൊക്കെ ഭക്ഷണം ആണെന്നേ ഉള്ളത് നിങ്ങൾ കൊടുക്കുന്നത് വ് പ്യുവർ വെ ആ അതെ അതെ വെജ് ആണ് നോക്കുന്നത് ആ ഓക്കെ ആ ഇവിടെയുണ്ട് ഓക്കെ ആ ഓക്കെ ഉണ്ടല്ലേ ഓക്കെ ഓക്കെ ആ ഞങ്ങൾ മസാല ദോശയാണ് കൂടുതലും എല്ലാവർക്കും താൽപ്പര്യമേ മസാല ദോശയും മസാല ദോശയുടെ കൂടെ പ്ലെയിൻ ദോ പ്ലെയിൻ ദോശയാണെങ്കിലും ഉണ്ടല്ലോ അല്ലേ ഉണ്ട് ഉണ്ട് സാമ്പാറും നമ്മുടെ വെള്ള ചമ്മന്തിയാണോ എന്നേ ഉള്ളത് ഉണ്ടല്ലേ ഉണ്ടല്ലേ ആ ഓക്കെ ഓക്കെ ആ അപ്പം പ്ലെയിൻ ദോശയും പത്ത് പേർക്ക് രണ്ടുമൂന്ന് പിള്ളേരും കൂടെ ഉണ്ടേ അപ്പം വട ഉണ്ടല്ലോ അല്ലേ അതിൻ്റെ കൂടെ വട ഉണ്ടല്ലോ ഉണ്ടുണ്ട് പിന്നെ അതെ ടേബിൾ ടേബിൾ ഒന്ന് റിസർവ് ചെയ്ത് ഇടുവായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഞങ്ങൾ ഇത്രയും പേർ ഒന്നിച്ച് വരുന്നത് കൊണ്ടേ ഓക്കെ ഓക്കെ ചായ ചായ ഉണ്ടല്ലോ അല്ലേ ചായ ഉണ്ടല്ലോ ആ ഓക്കെ ഓക്കെ അറേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സ്ത്രീകളൊക്കെ ഉള്ളതുകൊണ്ടേ അവർക്ക് ടോയ്ലറ്റ് സൗകര്യമൊക്കെ കാണുമായിരിക്കുമല്ലോ അല്ലേ എല്ലാമുണ്ട് ഓക്കെ ഓക്കെ ആ ഓ ശരി ശരി ശരി ശരി ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഡയറക്റ്റ് ലൊക്കേഷനിൽ ഇട്ടിട്ട് ഞങ്ങളൊന്ന് തന്നെ ഇപ്പോൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണേ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ നല്ല രീതിയിലായിരുന്നു സംസാരിച്ചതൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ താങ്ക്സ് ഞങ്ങൾ അങ്ങോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുവാണേ ആ പത്ത് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ എത്തും കേട്ടോ ഒന്ന് ടേബിൾ എല്ലാമൊന്ന് അറേഞ്ച് ചെയ്തൊന്ന് വെച്ചേക്കണേ ഫുഡ്ഡും കൂടെ ഒന്ന് ഓ വേണ്ട അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല എല്ലാൻ ഓക്കെ ആണ് ഓക്കെ ആണ് ദോശ ദോശ അല്ലേ അപ്പം കുഴപ്പമില്ല ദോശ അല്ലേ അത് എല്ലാവർക്കും ഇഷ്ടമാണ് പിള്ളേർക്കാണെങ്കിലും ഇഷ്ടമാണ് അതുകൊണ്ട് കുഴപ്പമില്ല അത് മതി അത് മതി ആ ശരിയെന്നാൽ ഓക്കെ